എനിക്ക് എൻ്റെ ഒരഭിപ്രായത്തിൽ മലയാളം ഫാഷയെന്നു പറയുമ്പോൾ കേരളത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഫാഷയാണ് മലയാളം ഫാഷ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഫാഷയാണ് മലയാള ഫാഷ അതേസമയം ഇംഗ്ലീഷ് ഫാഷയെന്നു പറഞ്ഞാൽ ലോകം മൊത്തവും ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കും ഒരു നയൻറ്റി എയ്റ്റ് പേഴ്സൻറ്റേജ് ഉള്ള ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുമെന്നാണ് ഒരു ഇത് അപ്പോൾ ഇപ്പം നമ്മളെവിടെയെങ്കിലും ചെന്ന ഉടനെ ഇപ്പം നമ്മളാരുടെയടുത്തെങ്കിലും സംസാരിക്കുന്ന നമ്മൾ മലയാളത്തിലായിരിക്കും ചോദിക്കുന്നത് ഇപ്പം ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടാകും ഹിന്ദി അറി യാത്തവരുണ്ടാകും അങ്ങനെ മലയാളത്തിലായിരിക്കും ചോദിക്കുന്നത് മലയാളം മാത്രം അറിയാവുന്നവരുമുണ്ടാകും മലയാളത്തിലായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ അവർ ഒരു മലയാളി ആണേൽ മാത്രമേ നമുക്ക് തിരിച്ചുത്തരം കിട്ടത്തുള്ളൂ അല്ലേ അവ അവർ എന്തോവാന്ന് അവരുടെ ഭാഷയിൽ ചോദിക്കും അതേസമയം ഇംഗ്ലീഷിലാണെങ്കിൽ ഇപ്പം മിക്കയിടത്തു ചെന്നാലും നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കുകയാണെങ്കിൽ അതിനു മറുപടി കിട്ടും അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് ഭാഷയാണ് ആ കാര്യത്തിൽ നല്ലത് എന്നാണ് ഒരഭിപ്രായം കാരണം എന്തുവാണ് ഇന്ത്യയിൽ മാത്രമേയുള്ളൂ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേയുള്ളൂ മലയാളം ഭാഷ പിന്നെ ഇവിടുന്നു വേറെ ഏതേങ്കിലും രാജ്യത്തോട്ട് ജോലിക്ക് വല്ലതും പോയിട്ടുള്ളവർ കാ അ കാണു അവരുടെ അടുത്ത് ചോദിക്കുകയാണേ മാത്രമേ അതും അ അവ അവരുടെ അടുത്തു ചോദിക്കുകയാണേ മാത്രമേ മലയാളം കിട്ടത്തുള്ളൂ അത് ഓ നമ്മൾ സംസാരിക്കുന്ന ആൾ മലയാളി ആയിരിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയൊക്കെ അവിടെ ഒരു സ്ഥാനമു ള്ളൂ